ഞാൻ ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇതേപോലെത്തന്നെ യൂട്യൂബൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ചിലപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് അർജൻസായിട്ട് വീട്ടുന്നൊക്കെ പോകേണ്ട സമയത്ത് നമുക്ക് യൂട്യൂബ് വഴി സോഷ്യൽ മീഡിയ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു മീൻകറി ആകാ രാവിലെ ചിലപ്പോൾ അർജൻറ്റ് കൂട്ടിപ്പോണ സമയത്താണ് മീൻകറി എത്ര ലളിതമായിട്ട് വെക്കാമെന്നു നോക്കുമ്പോൾ ചിലപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ പല രീതിയിലും പല ആളുകളും പല രീതിയിലാണ് വെക്കാറുള്ള ചില സമയം ചില ട്ട പാചകം സമയം എടുക്കും ചില പാചകം സമയം കുറച്ചു സമയം എടുക്കും അപ്പോൾ ചിലപ്പോൾ നമുക്കത്യാവശ്യം ചിലപ്പോൾ സമയം എടുത്തിട്ടുള്ള പാചകമാകും കുറച്ച് ടേസ്റ്റിൽ വെക്കാനാകും ചിലത് ചിലത് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് കുറഞ്ഞ സമയത്ത് വെക്കാനുള്ള പാചകവും നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ ഒരുപാട് സഹായിക്കണുണ്ട് പിന്നെ ഇപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണല്ലോ മുന്നോട്ടു പോകണത് അവർക്കൊക്കെ ഇപ്പോൾ ഞാൻ ഒക്കെയായിരുന്ന ചെറുപ്പത്തിൽ ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ടാണ് പാചകം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അടുക്കളയിലൊന്നും എന്തൊക്കെയാണതിൻ്റെ അളവ് ചേരുവകളൊന്നും അറിയില്ലേനു പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അതിനൊക്കെ വലിയ ഉപകാരമാണ് പക്ഷെ സോഷ്യൽ മീഡിയ എന്നു പറയുമ്പോൾ അത് അവർക്കൊരുപകാരം അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമാണ് പക്ഷെ അത് കാണുന്നോർക്കിത് പല രീതിയിൽ ഉപകരിക്കാം ഗുണം രൂപത്തിൽ പക്ഷേ നമ്മളെ വലിയോർക്കായാലും ചെറിയോർക്കായാലും ഇപ്പോൾ ഞാൻ തന്നെ പല രീതിയിലുള്ള ഫുഡ്ഡുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതു പല എണ്ണ എണ്ണ കടികളായാലും അതുപോലെത്തന്നെ ബിരിയാണി ഫിഷ് മോളി അതുപോലെ തന്നെ ഞാൻ കിള്ളി സാമ്പാറെന്നു പറയുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ട് അത് എത്ര രൂപത്തിൽ കൊ കുറഞ്ഞ ചേരുവ കൊണ്ട് സാധനങ്ങളൊന്നും ഇല്ലാതെ എത്ര രൂപത്തിൽ ഈസി ആയിട്ട് എന്നാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൊണ്ടു തന്നെ ഞമ്മക്ക് അത്തരത്തിലുള്ള പാചകങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലത്തെ എണ്ണ പലഹാരങ്ങൾ നമുക്ക് കുറച്ച് എണ്ണ ഇല്ലാതെ അല്ലെങ്കിൽ എങ്ങനെ പുഴുങ്ങി എടുക്കാം അപ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയേത്ത ഫുഡ്ഡൊക്കെ നമുക്ക് എന്താ പറയുക ആ നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ചിലപ്പോൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ അതു നോക്കിയിട്ട് പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ അപ്പോൾ അതൊരു ഫുഡ് വേറെന്തെങ്കിലും ആയിക്കോട്ടെ ഒരു മീൻ വറുക്കണതായിക്കോട്ടെ എണ്ണ കുറച്ച് രീതിയിൽ എങ്ങനെ വറുത്തെടുക്കാം അതുപോലെ തന്നെ ബിരിയാണി എങ്ങനെ ഈസിയായെടുക്കാം അതുപോലെത്തന്നെ നമ്മുടെ മാവ് എന്താ പറയുക അരി ഉഴുന്നൊക്കെ നമ്മൾ എത്ര സമയം കൊണ്ട് ചിലപ്പോൾ നമ്മൾ കുറേ സമയം കൊണ്ട് നമ്മൾ എടുത്താലും മാവ് പൊങ്ങി വരില്ല പക്ഷേ അതെങ്ങനെ ഈസിയായിട്ടെടുക്കാമെന്നുള്ള രൂപത്തിൽ ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് വള വളരെ ഉപകാരമാണ് ഈ വരുന്ന വ്യക്തികൾക്ക് അതൊരു വരുമാന മാർഗ്ഗം ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്ന അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ പാചകത്തിനെ കുറിച്ചൊക്കെ പറയുക നമുക്ക് കിട്ടണതെന്നുള്ളത് വലിയൊരറിവാണ് ഇപ്പത്തെ ഇപ്പത്തെ കുട്ടികൾക്കൊരുപകാരം ആണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്കത് വലിയൊരു ഒരു ഗുണമായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്